ഹലോ ഞാനൊരു തുണി ക്ലോത്ത് ഓഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് പാകമായിട്ടില്ല അപ്പോൾ ഇത് ഞാനത് തിരിച്ചു നൽകി അപ്പോൾ എനിക്ക് അത് തിരിച്ചു നൽകുമ്പോൾ അതിൻ്റെ കാശ് നമ്മൾക്ക് തിരിച്ചു നൽകേണ്ടതാണ് പക്ഷെ എനിക്ക് ആ കാശ് തിരിച്ചു നൽകിയിട്ടില്ല എന്ത്കൊണ്ട് നിങ്ങളത് തിരിച്ച് തന്നിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇനി അത് വേറെ എവിടെയെങ്കിലും പരാതിപ്പെടണോ എങ്ങനെയെങ്കിലും അതെനിക്ക് തിരിച്ചു തരണം തന്നെ പറ്റുകയുള്ളൂ പിന്നെ ഞാൻ ഓഡർ ചെയ്തിട്ടത് അത് എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മളത് ഇത് തിരിച്ചു നൽകുമ്പോൾ അതിൻ്റെ കാശ് നമ്മൾ തിരിച്ചിടേണ്ടതല്ലേ അതെന്തായാലും തിരിച്ചു തരണം